പഞ്ചായത്തു തലങ്ങളിൽ പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക സംഘടനകളുണ്ട് അതു നിലനിർത്തിക്കൊണ്ട് പോവാൻ പിന്നെ സംസ്കാരത്തിന് പുറത്തുള്ളവരുമായി എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അതു നിലനിർത്തി കൊണ്ടുപോവാൻ അവരിതാക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾ സംസ്കാരത്തിന് പുറത്തുള്ളവരുമായി നിങ്ങളിടപഴകാറുണ്ടോ എന്ന് ഉണ്ട് അതിനവർ സംസ്കാരത്തിന് പുറത്തുള്ളവരുമായിട്ട് മിണ്ടീം പറഞ്ഞു അത് സംസാരിച്ചു എന്നു വച്ച് നമുക്കൊന്നും വരാൻ പോവുന്നില്ല നമ്മൾ നമ്മുടേതായ വ്യക്തിത്ത്വമുള്ളവരാണെങ്കിൽ നമ്മളതിൽത്തന്നെ നിൽക്കും ഒരാളോട് മിണ്ടി വച്ച് നമ്മുടെ സംസ്ക്കാരം നശിച്ചു പോവാനോ ഒന്നും ആവാൻ പോവുന്നില്ല അതിൽ നമ്മുടെ സാംസ്കാരിക സംഘടനകളിലൊക്കെ പങ്കു ചേരാറുമുണ്ട് അതിനു പുറത്തുള്ളവരോടായിട്ട് വർത്തമാനം പറയാറൂമുണ്ട്